കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ എന്നുപറയുന്നത് പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കന്യാകുമാരി പിന്നെ ബീച്ചുകള് കണ്ണൂരുള്ള കണ്ണൂര് രണ്ട് പ്രധാനപ്പെട്ട ബീച്ചുകളുണ്ട് പഴ പയ്യമ്പലം ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച് പിന്നെ പിന്നെ കാസർഗോഡ് ജില്ലയില് ബേ കോട്ടകളുണ്ട് ആ ബേക്കൽ കോട്ടയൊക്കെ ഉണ്ട് പിന്നെയുള്ളത് വയനാട് ജില്ലയിലാണെങ്കിൽ തന്നെ കുറുവാ ദ്വീപ് മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങനെ എന്താണ് ഒരുപാട് വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തില് അവൈലബിൾ ആണ് അപ്പം കേരളത്തിൽ നിന്നുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും എന്താണ് ഒഴിവുസമയങ്ങളൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്